ഹലോ ആ ചേട്ടാ സുഖമല്ലേ എന്തൊക്കെ വിശേഷങ്ങൾ ഞാൻ അതായത് കാര്യമായിട്ട് നിങ്ങളെ വിളിച്ചത് തന്നെ ഒരു എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ആക്കി താന്ന് എത്ര നാളായിട്ട് നിങ്ങളെ സ്ഥലത്തുനിന്ന് നമ്മളിങ്ങനെ സാധനം വാങ്ങിക്കുന്നുണ്ട് ഏതുതരം തുണിത്തരങ്ങളും നമ്മൾ വാങ്ങിക്കുന്നത് നിങ്ങള അടുത്തുന്ന് മാത്രമാണ് ഒരു രാ ഞങ്ങളെ കട തുടങ്ങിയിട്ട്തന്നെ ഇപ്പം ഏതാണ്ട് ഒരു മൂന്ന് നാല് വർഷമയി ആ സമയം തുടങ്ങിയ അന്നുമുതൽ നിങ്ങളെ കടയിന്നന്നെയാണ് നമ്മൾ ഒന്നിച്ചിട്ടുള്ള ഓർഡർ എല്ലാം വാങ്ങിക്കുന്നതും സാധനങ്ങൾ എടുക്കുന്നതും എല്ലാം അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അറിയാലോ നാട്ടിൽ കോമ്പറ്റീഷൻ കൂടിക്കൂടി വരുന്ന എല്ലാ കടകളന്നെ മുക്കിന് മുക്കിനു കടകളുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് വിലയൊന്നും കയറ്റിയിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ രണ്ട് രണ്ടര ലക്ഷത്തിൻ്റെ സാധനം എടുത്തില്ലേ നിങ്ങൾ എന്തെങ്കിലും വിലയൊക്കെ കുറച്ചിട്ട് താന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻറെ ഒരു പ്രോമോക്കോടോ എന്തെങ്കിലും ആക്കി താ ഒരു കച്ചവടം എല്ലാം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെയല്ലേ ചേട്ടാ ചെയ്തു തരാ നമുക്കും നിങ്ങൾക്കും എല്ലാം ഒരു ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മളിത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ചേട്ടാ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ലാഭം എന്തായാലും നമുക്ക് എടുക്കാനും പറ്റില്ല അപ്പോൾ പറ്റുന്ന അത്ര എന്തെങ്കിലുമൊന്ന് നിങ്ങളൊന്ന് ചെയ്തു താ എന്നാൽ എന്നലെ നമുക്ക് അടുത്ത പ്രാവിശ്യവും നിങ്ങളെ അടുത്ത് നിന്ന് തന്നെ സാധനം എടുക്കേണ്ടതല്ലേ കുറച്ച് ഒരു എന്തെങ്കിലും താന്നപ്പാ പറ്റുന്ന പോലെക്കെ നിങ്ങൾ ചെയ്തുതരൊന്ന്